ആ അതെയതെ ഇതാരാണ് ആ അതെയോ ആഹാ എൻ്റെ എൻ്റെ കോളേജാണ് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷമായി അവിടെ പഠിച്ചിറങ്ങിയിട്ട് ആ ഞാൻ കുറേയായി പഠിച്ചിട്ട് ഞാൻ അവിടുത്തെ അലുമിനിയാണ് ആ ഓക്കെ അതെയോ ആഹാ അപ്പോൾ ഏതാണ് ഫിസിക്സാണോ പഠിക്കുന്നത് ഇപ്പോൾ അതെയോ ആ ഓക്കെ തേർഡ് ഇയറാണല്ലേ ആ ഇപ്പം ക്ലാസ്സിൽ എത്ര പേരുണ്ട് ആഹാ കൂടിയല്ലോ ഞങ്ങൾ പണ്ട് പഠിക്കുന്ന സമയത്ത് നാൽപ്പത്തേഴു പേരായിരുന്നു അത്രയേ അത്രയേ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളു ഇപ്പോൾ കൂടിയല്ലേ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് ആ ആഹാ ആ ഓക്കെ ഓക്കെ അതെയോ ആ ഓക്കെ ആ പിന്നെ പിന്നെ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഫാക്കൽറ്റി ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ടീച്ചേഴ്സൊക്കെ ആ ആ ആൾ ആൾ ഞങ്ങൾക്ക് ന്യൂക്ലിയർ ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല വൃത്തിക്ക് പഠിപ്പിക്കും ആ നിങ്ങൾക്ക് എങ്ങനെയാണ് നന്നായി പഠിപ്പിക്കുന്നില്ലേ ആ ആ ആ ആ ആ അതെയല്ലേ ആഹാ അപ്പോൾ എച്ച് ഒ ഡി ആയല്ലേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു അമ്പിളി മിസ്സായിരുന്നു എച്ച് ഒ ഡി ആളും നന്നായി പഠിപ്പിക്കുമായിരുന്നു ഇപ്പോൾ ടീച്ചറ് ഇപ്പോൾ എവിടെയോ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതെയതെ ആ പിന്നേ ഈ പിന്നേ എങ്ങനെയാണ് പ്രൊജക്ടൊക്കെ എന്തായി പ്രൊജക്ട് ഇപ്പോൾ ചെയ്യുന്നില്ലേ ആ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലായിരുന്നു ഞങ്ങൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ ഏതാണ് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടില്ല അല്ലെ ആ

തുടങ്ങുന്നതേ ഉള്ളു അല്ലേ അപ്പോൾ നിങ്ങൾ കറന്റലി റെലവന്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഏത് ഇപ്പോൾ ആസ്ട്രോ ആണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിലും ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് കൺവീനിയന്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ ചെയ്യാൻ നോക്കുക ഞങ്ങൾ ഇപ്പോൾ സാധാരണ വിക്ടോറിയ കോളേജിൽ എല്ലാ പ്രൊജക്ടും നല്ല നല്ല സ്റ്റഫുള്ള മെറ്റീരിയലുള്ള പ്രൊജക്ടുകൾ ഒക്കെയാണ് അപ്പോൾ നിങ്ങളും നല്ല അതിൻ്റെ ആ ഒരു പ്രസ്റ്റീജ് നിലനിർത്തിക്കൊണ്ടു വരിക ഓക്കെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ ആ ഞങ്ങളുടെ നിങ്ങളുടെ എച്ച് ഒ ഡിയിൽ നിന്ന് ഒരു മെയില് വന്നിട്ടുണ്ടായിരുന്നു ഒരു കരിയർ ഗൈഡൻസ് പോലെയുള്ള ഒരു മീറ്റിംഗിനു വേണ്ടിയിട്ട് മിക്കവാറും ഒരു ടു ത്രീ മന്ത്സിനു ശേഷം ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം ഒരു ദിവസം അന്ന് നിങ്ങളൊക്കെയായിട്ട് ഒന്ന് ഇൻ്ററാക്ട് ചെയ്ത് ഗൈഡൻസൊക്കെ പറഞ്ഞു തരാം ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും പല ഒരു ഒരു ബ്ലാങ്ക് മൈൻ്റായിരിക്കില്ലേ എന്താ ചെയ്യണ്ടെയെന്നൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു ഗൈഡൻസിനായിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് വരുന്നുണ്ട് ആ ആ എനിക്കിവിടെ കുറച്ചു ഒരു ഒരു മീറ്റിങ്ങുണ്ട് ഒരു അഞ്ചു ഒരു അഞ്ചു മിനിട്ടിനു ശേഷം അപ്പോൾ അതൊന്നു അറ്റൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെക്കാണാം ഓക്കെ ആ ഓക്കെ ശരി വിളിക്കാം